ആ ഇത് ഗെ പിന്നെ ട ഇതിൽ നിന്നാണേ ഒരു പിന്നെ ട്രാവൽസ് ഇതിൻ്റെ ടൂറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് അല്ലേ ആ ആ പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഇവിടെ കോഴിക്കോടുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലെയ്സിലും ഒന്ന് പോവാനാണ് അതിന്റെ റേറ്റും അതിന്റെ പിന്നെ എക്സ്പെൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒക്കെ ഒന്ന് പറഞ്ഞുതരുമോ ഫുഡ്

ആ ആ ആ ആ ആ പിന്നെ ആ പാക്കേജ് എങ്ങനെയാണെന്നുള്ളത് ഹ്മ് ഇല്ല അല്ല വൺ ഡേ ട്രിപ്പ് ആണ്

ആ ഫുഡ് വേണം ഫുഡും ട്രാവെൽ അവിടേക്കുള്ള ട്രാവലും ഒക്കെ വേണം അതിന്റെ എല്ലാം കൂടി എക്സ്പെൻസ് ആയിട്ടാണ് ചോദിക്കുന്നത് ഉം ഉം ആ ആ മൊത്തമായിട്ട് കറങ്ങാം ഒരു ദിവസം കൊണ്ട്

ആ ആ ആ ഓ ആ ആ എന്നാൽ ഇങ്ങളെ പിന്നെ അതിലെ പിന്നെ അതിൻ്റെ നമ്പർ ഞാനിപ്പോൾ വിളിച്ച നം ഇതിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നു ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ അതിന്റെ ആ എന്നിട്ട് പേയ്മെൻ്റ് ഞാൻ അതിലേക്ക് അയയ്ക്കുന്നുണ്ട് ആ അഡ്വാൻസ് പെയ്മെൻ്റേ ചെയ്യുള്ളൂ കേട്ടോ ഇപ്പോൾ ബാക്കി ൻ ആ ആ ഓ എന്നാൽ ഓക്കെ